ഞാനെടുത്തതില് വച്ചിട്ട് എനിക്കേറ്റവും ഇഷ്ട്ടപ്പെട്ട ചിത്രം ഏതാന്ന് വച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഒരു ഒരു അപ്പൂപ്പൻ്റെ ഫോട്ടോയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരപ്പൂപ്പൻ അതായത് ഒരു സുഖമില്ലാത്തൊരപ്പൂപ്പനാണ് എൻ്റെ വീടിൻ്റെടുത്ത് എൻ്റെ വീടിൻ്റെ രണ്ട് വീടിൻ്റെ താഴെ ഉള്ളൊരപ്പൂപ്പനാണ് അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളും ഞാനൊരു ഫോട്ടോഗ്രഫറാന്നൊന്നും അപ്പൂപ്പന് അങ്ങനെ അറിയില്ലായിരുന്നു അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരിടയ്ക്ക് അപ്പൂപ്പൻ വന്നിട്ട് ഞാനിങ്ങനെ ക്യാമറയില് ഒരു കുട്ടിക്ക് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ എന്നോട് അപ്പൂപ്പൻ ചോദിച്ച് നീ ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങിയോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറെ ആയല്ലോ തുടങ്ങിയിട്ട് ക്യാമറ മേടിച്ചിട്ട് കുറച്ചായെങ്കിലും ആദ്യം ഞാനിങ്ങനെ ഫോണിലൊക്കെ എടുക്കുവായിരുന്നു അപ്പൂപ്പാന്ന് പറഞ്ഞു അപ്പം എന്നോടപ്പൂപ്പൻ ചോദിച്ചു നീയെൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരുവോന്ന് ചോദിച്ചു അപ്പം ഞാനെന്ത് ചെയ്തു ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി അയ്യോ എന്നോടിങ്ങോട്ട് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷവും സഹതാപവുമൊക്കെ തോന്നി അപ്പം ഞാൻ വേഗം എന്നാൽ അപ്പൂപ്പാ നല്ല ഡ്രസ്സക്കെ ഇട്ടിട്ട് വന്നോളു എന്ന് പറഞ്ഞു അപ്പൂപ്പൻ നല്ല ഡ്രസ്സക്കെ ഇട്ട് വന്നു ഞാൻ ഫോട്ടോ എടുത്തു കൊടുത്തു അപ്പൂപ്പനത് ഭയങ്കര ഇഷ്ട്ടുവുമായി ഭയങ്കര ഇഷ്ട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട്ടവായി എന്നിട്ട് അതെന്നോട് ഒരു പ്രിന്റ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു അത് ഞാൻ പ്രിന്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു അതാണെനിക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ളൊരു ചിത്രം ഞാനെടുത്തതില് ഏറ്റവും ഇഷ്ട്ടമുള്ളതും സന്തോഷകരമായിട്ടുള്ള ഒരു ചിത്രം എന്ന് വച്ചാൽ അതാണ്